ഞാൻ എന്റെ വീട്ടിലെ അടുക്കള ആവിശ്യത്തിന് വേണ്ടി കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ മേടിച്ചിരുന്നു ഓൺലൈനിൽ നിന്ന് മേടിച്ചിരുന്നു വളരെ സന്തോഷം നൽകിയ ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു അത് ഉപയോഗിക്കുമ്പോൾ ആയാലും അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് മനസിൽ വരുന്നത് നല്ല വ്യത്യസ്തമായ നിറങ്ങളിലും പിന്നെ അത് മാത്രമല്ല അതിന്റെ ഷേപ്പ് അതിന്റെ നല്ല ക്വാളിറ്റി ആയാലും അതിന്റെ ഉപയോഗതയും ഒക്കെ വളരെ നല്ല തന്നെയാണ് നല്ല പാക്കിംഗില് നല്ല കവറൊക്കെ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് അവർ നമുക്ക് തന്നത് ഉപയോഗിക്കാനാണെങ്കിലും വളരെ എളുപ്പമായിട്ടും പിന്നെ അത് കൊണ്ട് നടക്കുമ്പം തന്നെ വളരെ ഒരു അതായത് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് വളരെ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ എന്റെ അടുക്കളയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാത്രം അതായത് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ ഒന്നാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് വളരെ വില ഞാൻ കൊടുത്ത പൈസയുടെ അത് അവര് നല്ല രീതിക്ക് തന്നെയാണ് തന്നിട്ടുള്ളത്